ഹൽ ഹലോ ഹലോ ആരാണ് അതെ ശിവാനിയാണ് ആ വന് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു

ആണോ താങ്ക് യു താങ്ക് യു

ഓക്കെ ആ താങ്ക് യു മാം ആഹാ

ഹാ താങ്ക് യു മാം ആ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്

സന്തോഷം മാം ഞാനിപ്പോൾ എൻറെ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആണ് ഞാൻ ആ എനിക്കിപ്പോൾ ജെയ്സൺ സാർ ആണ് കോച്ചിങ്ങ് തരുന്നത് അതെ ഞാൻ സാറിൻറെ അടുത്ത് തന്നെ ആണ് ആദ്യം തൊട്ടേ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പഠിക്കുന്നത് ഒരേ സ്കൂളിൽ തന്നെയാണ് ചെറുതിലേ തൊട്ടേ

ആ

ആ ഓക്കെ ഷുവർ മാം നോക്കാം നോക്കാം

ഓക്കെ മാം ഷുവർ നോക്കാം നോക്കാം താങ്ക്സ് താങ്ക് യു